അങ്ങനെ പാചക ക്ലാസുകളിലൊന്നും ഞങ്ങളങ്ങനെ പങ്കെടുത്തിട്ടില്ല അപ്പം ഈ ഓൺലൈനിൽ വരുന്ന പാചക ക്ലാസുകള് എന്താ പറയണേ കുക്കിംഗ് വീഡിയോസ് ഒക്കെ കാണാറുണ്ട് എന്നല്ലാതെ ഒരു ലൈവായുള്ള പാചക ക്ലാസിലങ്ങനെ പങ്കെടുത്തിട്ട് ഒന്നുമില്ല നമുക്ക് ഇതെല്ലാം നമ്മുടെ അമ്മമാരുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലാതെ വേറെ ഇങ്ങനെ കുക്കിംഗ് ക്ലാസുകളില് ഒന്നും പങ്കെടുത്തിട്ടില്ല അതുകൊണ്ടു തന്നെ അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുക എന്ന് വെച്ചാൽ നമ്മള് പറഞ്ഞില്ലേ ഇപ്പോൾ യൂട്യൂബിലോക്കെ നോക്കി പുതിയ പുതിയ വീഡിയോസ് കാണാറുണ്ട് അതിൽ ചിലതെല്ലാം പരീക്ഷിച്ചു നോക്കാറുണ്ട് അത്രേ ഉള്ളൂ